ഹലോ താജ് ഹോട്ടലല്ലേ ആ ഞാനേ ഒരു റിസപ്ഷന് വേണ്ടി ഫുഡ് ഓർഡറെയ്യാൻ വേണ്ടി വിളിച്ചതായിരുന്നു രണ്ടായിരം പേർക്കുള്ള ഫുഡാണ് വേണ്ടത് നമുക്ക് മോർണിംഗ് തൊട്ട് ഒരു പതിനൊന്ന് മണി മുതല് നാല് മണി വരെ ഫുഡ് സെർവെയ്യണ്ടി വരും ആ സമയത്ത് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റില്ലേ ആ ഫുഡ് എന്തൊക്കെയാന്ന് വെച്ചാൽ ജ്യൂസ് നമുക്ക് നല്ല ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ഒര് മൂന്നാല് ടൈപ്പ് ജ്യൂസ് വേണം പിന്നെ കുറച്ച് സ്നാക്ക്സ് പിന്നെ മെയിനായിട്ട് ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ ബിരിയാണി പിന്നെ കുറച്ച് സാധാ ചോറും കറികളൊക്കെ ഇതിനൊക്കെ എത്രയാവുന്നൊന്ന് പറയാൻ പറ്റുമോ പത്ത് രണ്ടായിരം പേർക്കുള്ള ഭക്ഷണമാകുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ടൊക്കെ നിങ്ങള് തരില്ലേ ആ താങ്ക്യു നിങ്ങൾക്കെന്തായാലും അതവിടെ ഞങ്ങളുടെ അവിടേക്ക് എത്തിച്ചു തരാൻ പറ്റില്ലേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് നിങ്ങളുടെ കട ഉള്ളത് ഞാന് അഡ്രസ്സ് സെൻറ്റെയ്ത് തരാം ഓക്കെ താങ്ക്യു